ഹലോ ടീച്ചർ ശ്രീജ അല്ലേ ഞാനേ എനിക്ക് ഒരു കഥകളി പഠിപ്പിക്കുന്നില്ലേ ആ അപ്പോള് അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയായിരുന്നേ ഇന്നൊരുപാട് പേര് പറഞ്ഞു ടീച്ചറുടെയടുത്ത് വന്നാല് നല്ല ടീച്ചറാണ് നല്ല രീതിയിൽ തന്നെ പഠിപ്പിക്കുമെന്നുപറഞ്ഞായിരുന്നു അറിഞ്ഞതുകൊണ്ട് വിളിച്ചതാണ് അപ്പോള് അതിൻ്റെ കോഴ്സ് അതിൻ്റെ ഫീസൊക്കെ ഒന്നു പറയാമോ ആ എനിക്ക് ആ എനിക്കു പഠിക്കാനായിരുന്നെ ആ ഹാ അപ്പോള് അതിന്റെ ആ ഹാ ആ അപ്പോള് അതിന്റെ റേറ്റ് എങ്ങനെ ആണ് മൂപ്പതിനായിരം രൂപ ആ ആ ഹാ ഹാ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ അതിന്റെ റിഡക്ഷൻ വല്ലതും ഉണ്ടോ കുറവു വല്ലതും വരുമോ കുറവു വല്ലതും വരുമോ ആ ആ ഓക്കെ ആ ആ ആയിക്കോട്ടെ അപ്പോള് ആറു മാസത്തെ കോഴ്സൊക്കെ പഠിക്കുന്നതിന് ഇരുപതിനായിരം രൂപ പതിനായിരം രൂപ ആ കംപ്ലീറ്റ് ആ ആ ആ ഒരു വർഷം ആ ആ അപ്പോള് പൈസയ്ക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണേ അപ്പോള് അതാഅ ആ അതാണു ചോദിച്ചേ റിഡെക്ഷൻ വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചത് ആ ആ ആയിക്കോട്ടെ ഓ ശരി ശരി ശരി ആണോ ഒരുപാട് പേരുണ്ടോ പഠിക്കാൻ എങ്ങനെ എല്ലാവരും എങ്ങനെ ഈ മൂന്നു ബാച്ചിലും ആളുകൾ കുട്ടികളുണ്ടോ ഓക്കെ ഓക്കെ

ആയിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങൾക്കൊരു ബ്രാഞ്ചേ ഉള്ളോ അതോ എവിടെയൊക്കെ ഉണ്ട് ഒരു സ്ഥലത്തേ പഠിപ്പിക്കുന്നുള്ളോ ഒരു ബ്രാഞ്ചേ ഉള്ളോ അതോ പഠിപ്പിക്കുന്നതിന് ആണോ ആ ആ ഓക്കെ ആ ഹാ ആ ഹാ ഹാ പഠിപ്പിക്കുന്നത് അവിടെ വേറെ ടീച്ചേഴ്സും ഉണ്ടോ അതോ ടീച്ചര് തന്നെയാണോ പഠിപ്പിക്കുന്നേ

ആ അതേ ഓക്കെ ഓക്കെ ആ ഹാ ആ താല്പര്യം ആ നേരിട്ടു വരാം സ്പെഷ്യലാണ് ഓക്കെ ആ മാം ആയിക്കോട്ടെ ആണോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ആയിക്കോട്ടായിക്കോട്ടെ ആ ടീച്ചറിനെ ടീച്ചറിനെ ഞാൻ വിളിച്ചോളാം വിളിച്ചോളാം അപ്പോള് ഓക്കെ ബൈ